ഞാൻ ആലപ്പുഴ ജില്ലയിൽ താമസിക്കുന്ന ഒരു ആൾ ആയത് കൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും എന്താണ് ടൂറിസ്റ്റുകൾ അട്ട്രാക്റ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് അത്രയും മനോഹരമായിട്ട് വൃക്ഷ ഭംഗികൾ കൊണ്ടും എന്താണ് പച്ചപ്പ് കൊണ്ടും അത്രയും ഭംഗി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ എന്ന് പറയുന്നത് അതു കൊണ്ടു തന്നെ ഒരു ആലപ്പുഴയെ കുറിച്ച് ഒരു ടൂറിസ്റ്റിനോട് വിവരിക്കാൻ നമുക്ക് ഒരിക്കലും എന്താണ് ഒരു വാക്കുകൾ കടമെടുക്കുക അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ട കാരണം അത്രയും അധികം ഭംഗി നിറഞ്ഞ ഒരു സ്ഥലമാണ് ആലപ്പുഴ എന്ന് പറയുന്നത് കാരണം ബീച്ചുകൾ കൊണ്ടും കായലുകൾ കൊണ്ടും അതു പോലെ തന്നെ പച്ചപ്പുകൾ കൊണ്ടും ഒരുപാട് ഭംഗി നിലനിർത്തുന്ന ഒരു സ്ഥലം തന്നെയാണ് ആലപ്പുഴയിലെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് തന്നെ ആലപ്പുഴയിലൊണ്ടായിരുന്ന ബീച്ചാണ് ആലപ്പുഴ ബീച്ച് കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബീച്ചുകളിൽ ഒന്നാണ് കാരണം അത്രയും വലിയ സമുദ്രം അതിൽ നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകളെ അട്ട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് നല്ല ബീച്ച് ആണ് ആലപ്പുഴ ബീച്ചെന്ന് പറയുന്നത് അത്പോലെ തന്നെ ആലപ്പുഴ ബീച്ചാണ് മെയിൻ അട്രാക്റ്റീവ് എങ്കിലും സൈഡിൽ ഒരുപാട് പറവൂർ ബീച്ച് പുന്നപ്ര ബീച്ച് ഇങ്ങനെ ഒരുപാട് ബീച്ചുകൾ നമുക്ക് അടുത്തടുത്തായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ ആ ഒരു എന്നാണ് ആലപ്പുഴയിലെ ആ ഒരു ബൈപാസ് റോഡിൽ നിന്നും ബീച്ച് കാണുന്ന ഒരു ദൃശ്യമെന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുളള ഒരു കാഴ്ച്ച തന്നെ ആണ് അടുത്തതായിട്ട് ആലപ്പുഴയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആലപ്പുഴയുടെ ഏറ്റവും ഫേമസായിട്ടുള്ള ലോകത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ട് ടൂറിസ്റ്റുകൾ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ് വള്ളം കളി എന്ന് പറയുന്നത് വള്ളം കളി എന്ന് പറയുന്നത് മഴക്കാലമായാൽ ഏകദേശം ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കേരളത്തിൻ്റെ ഒരു ഉത്സവമെന്ന് തന്നെ പറയാം ഒരുപാട് ആൾക്കാർ വന്നു പുറത്ത് നിന്നായാലും ഇന്ത്യയ്ക്ക് പുറത്ത് നിന്നാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇന്ത്യയിൽ അകത്ത് നിന്നാണെങ്കിലും ഒരുപാട് കാഴ്ച്ചക്കാർ ഉള്ള ഒരു സ്ഥലമാണ് വള്ളംകളി വള്ളംകളി എന്ന് പറയുന്നത് നെഹ്റു ട്രോഫി വള്ളം കളി അത് പോലെ തന്നെ ചമ്പക്കുളത്ത് നടക്കുന്ന ചമ്പക്കുളം വള്ളംകളി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് വലിയ വലിയ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ബോട്ട് ബോട്ട് റേസ് ആയിട്ട് വന്നു തുഴഞ്ഞ് ജയിക്കുന്നു ഒരു ഇതാണ് അപ്പം ആ ഒരു ആലപ്പുഴയുടെ കേരളത്തിൻ്റെ തന്നെ ഒരു എന്നാണ് ഒരു ഇതായിട്ട് കാണുന്ന ഒന്നാണ് വള്ളംകളി എന്നു പറയുന്നത് അപ്പം വള്ളംകളിയെ കുറിച്ച് കാണാനും അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും വളരെ അധികമായിട്ടാണ് അതു അത് അടുത്തതായിട്ട് കാണുന്ന ഒരു പ്രത്യേകതയാണ് ഇവിടെ കായലുകളും അതുപോലെ തന്നെ ഇവിടത്തെ മത്സ്യസമ്പത്തിനെ കുറിച്ചുള്ളത് കാരണം ആലപ്പുഴയിലെ ഫുഡ് എന്ന് പറയുന്നത് വളരെ മികച്ച രീതിയിലുള്ള അതായത് എന്താണ് നമ്മുക്ക് എന്താണ് ഫിഷ് ഫിഷുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെ ഫേമസ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഏറ്റവും ഇതായിട്ട് കാണുന്ന ഒരു ഫിഷ് ആണ് കരിമീനെന്ന് പറയുന്നത് കരിമീൻ്റെ പ്രത്യേകതകളെ കുറിച്ചും കരിമീൻ്റെ ആരോഗ്യഗുണങ്ങളെ കുറിച്ചും ഒക്കെ ഒരുപാട് കേട്ട അറിഞ്ഞ ടൂറിസ്റ്റുകൾ കരിമീൻ ഫ്രൈ കഴിക്കാനും അത് പിന്നെ അതിൻ്റെ ടേസ്റ്റ് ആസ്വദിക്കാനും ആലപ്പുഴയിൽ എത്താറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഫിഷ് ഐറ്റംസ് അതുപോലെ തന്നെ എന്താണ് ഷാപ്പ് എന്നുള്ള കള്ള് ഷാപ്പ് പോലുള്ള ഒരുപാട് അതിലുള്ള ഷാപ്പിലെ കറികൾ അതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളുമൊക്കെ വളരെ എന്താണ് ടൂറിസ്റ്റുകളെ ആകർഷിക്കാറുണ്ട് അവർ അതിന് എന്താണ് അതിന് വേണ്ടി തേടി തന്നെ ഇങ്ങോട്ട് വരാറുണ്ട് വളരെ മികച്ച ഒരു ഇതാണ് അതുപോലെ തന്നെ അടുത്ത ഒരു എടുത്തു പറയേണ്ട ഒരു ഇതാണ് തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലം തണ്ണീർമുക്കമെന്ന് പറഞ്ഞ ഒരു കായൽ എന്താണ് ഡാം പോലെ കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു വെള്ളം വെള്ളത്തിനെ എന്താണ് അതിമനോഹരമായിട്ട് കാണുന്ന ഒരു ഇതാണ് തണ്ണീർമുക്കം ബണ്ടെന്ന് പറഞ്ഞ തണ്ണീർമുക്കം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടല് കേരളത്തിൽ ഒരു നയൻറ്റീസ് തൊട്ട് ഫേമസ് ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഹൗസ് ബോട്ടുകളെന്ന് പറയുന്ന ഹൗസ് ബോട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു എന്താണ് ഒരു വീടിൻ്റെ പോലെ നമുക്ക് ഒരു അതിൻ്റെ അകത്ത് റൂമും കാര്യങ്ങളൊക്കെ വച്ചുകൊണ്ട് നമുക്ക് എന്താണ് ഒരു ദിവസം മുഴുവൻ ഒരു കായലിൻ്റെ നടുക്ക് ഒരു ബോട്ടിൽ സ്റ്റേ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഹൗസ് ബോട്ടുകൾ ഹൗസ് ബോട്ടുകൾ വളരെ അട്ട്രാക്റ്റീവ് ആണ് അതു പോലെ ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യാനും അതിൻ്റെ അനുഭവം അനുഭൂതി തിരിച്ചറിയാൻ ഒരുപാട് ടൂറിസ്റ്റുകൾ ആലപ്പുഴ ജില്ലയിലേക്ക് എത്താറുണ്ട് അതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലയെ കുറിച്ച് ഒരു ടൂറിസ്റ്റിനോട് പറയാൻ ഒട്ടും നമ്മൾക്ക് ഒരു പാടുപെടേണ്ട ആവശ്യം വരുന്ന അല്ല